എനിക്കു പുരാവസ്തുമായ വസ്തുക്കളാണു ശേഖരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എന്താണെന്നുവച്ചുകഴിഞ്ഞാല് തലമുറകള് കാണിച്ചുകൊടുക്കാൻ പറ്റിയത് പുരാവസ്തു സാധനങ്ങളാണ് പഴയ കാര്യങ്ങള് നടക്കുമ്പോള് പുരാവസ്തുവായിട്ട് പണ്ട് നമ്മുടെ പാടത്തു വച്ചിരിക്കുന്ന നിൽക്കുന്ന നുകവും കലപ്പയും അതുപോലെതന്നെ പണ്ടുണ്ടായിരുന്ന വെള്ളിക്കോലും ചെമ്പും ചെമ്പുപാത്രങ്ങളും ഓടും അതുപോലെ തന്നെ അന്നത്തെ ചുണ്ണാമ്പ് നെയ്ത്തുകൂടങ്ങളും ചെപ്പും ഒക്കെ അങ്ങനെയുള്ള പുരാവസ്തു സാധനങ്ങള് ഒരു സാധനങ്ങളുണ്ട് നമ്മളന്ന് പിള്ളേര് ഓർക്കാൻ പറ്റാത്ത അന്നത്തെ ത്രാശ് അതുപോലെ കഴിഞ്ചി അതുപോലെ നമുക്ക് അന്നുണ്ടായിരുന്ന നമ്മുടെ എണ്ണ എടുക്കുന്ന ഔണ്സ് കുപ്പികള് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള പുരവസ്തുക്കള് എല്ലാം തന്നെ അന്ന് ഉണ്ടായിരുന്നു ഇന്നിപ്പോള് പുരാവസ്തു എന്നു പറയുന്ന സാധനങ്ങള് ഇന്നു കുറവാണ് അന്ന് ഓർമ്മയിലുണ്ടായിരുന്ന സാധനം അന്നന്ന് ചെമ്പിൻ്റെ എന്തെല്ലാം സാധനങ്ങളന്നുണ്ടായിരുന്നു പറ നാഴി ഇടങ്ങഴി വിളക്ക് മണ്ണെണ്ണ വിളക്ക് പാട്ട വിളക്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പുരാവസ്തുവിലേക്കു നമ്മള് പിന്നെ എടുക്കുന്ന സാധനങ്ങൾ എന്നു പറയുന്നതെന്തും നമ്മള് പഴയ സാധനങ്ങള് നമ്മള് കളയരുത് അതെല്ലാം നമുക്കു വരുംതലമുറയ്ക്കുവേണ്ടി സൂക്ഷിച്ചുവയ്ക്കേണ്ട സാധനങ്ങളാണ് പണ്ടുണ്ടായിരുന്ന സാധനങ്ങള് നമ്മള് എടുത്ത് ആക്രിക്കാർക്കു കൊടുക്കുന്നതല്ല അതിന്റെ അകത്തുള്ള നമ്മള് എപ്പോഴും ചെയ്യേണ്ടതെന്നുവച്ചാല് വരുംതലമുറയ്ക്കുവേണ്ടി നമുക്കെന്തെല്ലാം നമ്മള്ക്ക് അവർക്കു കൊടുക്കാന് പറ്റും അത് നമ്മള് പരമാവധി നമ്മള് ശേഖരിക്കുക ശേഖരിക്കണമെങ്കിൽ നമ്മള് അതിനൊരു താല്പര്യം കാണിക്കണം നമ്മള് താല്പര്യം കാണിച്ചാല് മാത്രമേ അതു ശേഖരിക്കാം നമ്മളുടെ കൺമുമ്പിൽ കാണുന്നത് നമ്മള്ക്കു നാളേക്ക് ആവശ്യമുള്ളതാണെങ്കില് അതു ശഖരിക്കാൻ നമ്മള് പഠിക്കണം അല്ലാതെ നമ്മള് അത് എടുത്ത് വില്ക്കുന്നതല്ല അതിൻ്റെ ശരി നമ്മുടെ വീട്ടില് ഉപയോഗമില്ലാത്ത ഒരു സാധനമാണ് നമ്മളെവിടെ ഇരിക്കും പണ്ട് നമ്മള് ഓർക്കുന്നുണ്ട് നമുക്ക് മണ്ണെണ്ണ വിളക്കിലാണ് അന്നന്നത്തെ കുട്ടികൾ പഠിക്കുന്നത് മണ്ണെണ്ണ വിളക്ക് ആ ഓട്ടു വിളക്ക് ആ ഓട്ടു വിളക്ക് അന്നു കൊടുത്തുകഴിഞ്ഞാൽ പത്തോ അഞ്ചോ പത്തോ രൂപ കിട്ടുമായി അതു സൂക്ഷിച്ചുവച്ച് ഇന്നാ ഓടിൻ്റെ ഒരു വിളക്കു കാണിച്ചു കൊടുക്കുന്ന ഇതിലാണു നമ്മള് പഠിച്ചതന്ന് നമ്മള് മനസ്സിലാക്കണം അതുപോലെതന്നെ ഉരലും ഉലക്കയും അന്നൊരു പുരയില് അന്ന് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ഇന്ന് ഉരലിന്റെയും ഉലക്കയുടെയും ആവശ്യമില്ലാത്ത കാലഘട്ടമായി ഇന്ന് കാരണം ഇന്ന് നമ്മൾക്കത് ഫ്ലവർ മില്ലിലേക്കു മാറി അതു സൂക്ഷിച്ചു വച്ചുകഴിഞ്ഞാൽ നാളെകളില് ഇതാണ് ഉരല് ഉലക്ക അത് കല്ലിൻ്റെ മാത്രമല്ല അന്നുണ്ടായിരുന്നു തടിയുടെ ഉണ്ടായിരുന്നു തടികൊണ്ടുള്ളത് ഉണ്ടായിരുന്നു അന്ന് മോരു കലക്കാൻ ഉപയോഗിച്ച കടകോല് ഇന്ന് ആര് മോരു കലക്കുന്നു അതുപോല അന്നത്തെ കടകോല് അതുപോലെതന്നെ ചട്ടികള് മൺചട്ടികള് ഇന്ന് ആര് എത്ര പേര് മൺചട്ടികള് ഉപയോഗിക്കുന്നുണ്ട് അന്നു മൺചട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിരട്ട തവികളുണ്ടായിരുന്നു ഉപ്പു നിറയ്ക്കാൻ ഉപ്പു പാത്രങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഉള്ള അന്നത്തെ തീപ്പെട്ടി ഇന്ന് പിള്ളേർക്ക് ഓർമ്മയിൽ പോലും കാണില്ല അന്ന് തീപ്പെട്ടി ഇല്ലാത്ത വീടുകളില്ല ഇന്നതു പോയിട്ട് ആ സ്ഥാനങ്ങളെല്ലാം മാറി ഇതെല്ലാം ഇന്നത്തെ അല്ലെങ്കില് നാളത്തെ തലമുറയ്ക്കുവേണ്ടി ശേഖരിച്ചുവയ്ക്കാന് പറ്റിയ സാധനങ്ങളാണ് ഇത്